ഹലോ ആ അതെ അതെ പറഞ്ഞോളൂ ആ എങ്ങനത്തെ ഡ്രെസ്സാണ് ഓക്കേ എത്രപേർക്ക് വേണ്ടിയിട്ടാണ് ഓക്കേ അപ്പം എന്നത്തേക്ക് വേണം

ഓക്കെ ആണല്ലേ ആ അപ്പോൾ അതിൻ്റെ മെഷർമെറ്റും തുണിയൊക്കെ നിങ്ങൾ തന്നെ എടുത്തു തരികയാണോ ചെയ്യുന്നത്

അത് എന്നത്തേക്കാന്ന് പറഞ്ഞാൽ മതി അപ്പം നോക്കിയിട്ട് വരാൻ പറ്റുന്നത് ആണെങ്കിൽ എന്തായാലും വരാൻ നോക്കാം ഇല്ലില്ല അത് കുഴപ്പമില്ല എന്തായാലും ആ ഇല്ലില്ല ആ അതെന്താലും കുഴപ്പമില്ല എന്തായാലും അടുത്ത മന്തിലേക്കല്ലേ വേണ്ടത് ആ അത് കുഴപ്പമില്ല ഇപ്പോൾ നാളെത്തന്നെ മെഷർമെറ്റെടുക്കാൻ വരണമെന്നുണ്ടെങ്കിൽ എന്നാണെങ്കിൽ നാളെ തന്നെ നോക്കാം ആ അതെന്തായാലും കിട്ടും എന്താലും നോക്കാം നാളെ തന്നെ എല്ലാ മെഷർമെൻറ്റെടുത്തിട്ട് ഡ്രെസ്സും നാളെ തന്നെ തരികയാണെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ അത് അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഡ്രെസും കിട്ടി പിന്നെ അതിന് ശേഷം മെഷർമെന്റ് എടുക്കാൻ വരാം എന്നാൽ